നമസ്ക്കാരം ആരാ മനസ്സിലായില്ല ആ ആ ആ അത് പറയാം ഞാൻ ഇതാ ഇപ്പോൾ പച്ചക്കറി വളത്തിനു പോയി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ സാർ കൂടി വരികയാണ് നമുക്ക് ഒപ്പം കണ്ടിട്ട് ഒന്ന് പച്ചക്കറി ഇങ്ങനത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം ഇന്ന് വരുമോ ഇതൊക്കെയാണ് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം ഇതൊക്കെയാണ് ഞങ്ങൾ പച്ച അപ്പോൾ ഇപ്പോഴാണ് പച്ചക്കറികൾക്ക് ഒക്കെ വീട്ടിന് അടുത്ത് നിങ്ങൾക്ക് എന്തിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ പച്ചക്കറി ഹോൾ സെയിൽ വിൽക്കാൻ ആണോ

ആ ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് അത് നമ്മൾക്ക് ഹോൾ സെയിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തരാം ഇതാണ് നമ്മൾക്ക് ഉള്ളത് ഇത്രയും പച്ചക്കറി ആണ് ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് ഇനി സാറിന് എത്ര മാസത്തിന് മുന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോഴേക്കും റെഡി ആക്കിയിട്ട് വെക്കാം സാർ ഇല്ല ഞങ്ങൾക്ക് വേറെ തോട്ടം ഇതൊക്കെ ഉണ്ട് അതൊക്കെ ബാക്കിലാണ് ബാക്കിലുണ്ട് പിന്നെ വേറെ സ്ഥലങ്ങളുണ്ട് അതൊക്കെ ആണ് ഞങ്ങളുടെ

ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് വാഴക്കൃഷി ചെയ്തിട്ടുണ്ട് വാഴക്കൃഷി അപ്പുറത്ത് ആണ് എന്നാ ഞാൻ സാറിന് ലിസ്റ്റ് തരുവാണെങ്കിൽ ഞാൻ ഞാനിപ്പോൾ ആ അത് അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞ് ക്യാഷ് എന്താണ് പറയുക എത്ര രൂപ ആവുമെന്ന് ഞങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ പറഞ്ഞുതരാം പറഞ്ഞ് തന്നാൽ മതി ഓക്കെ ഇതിൽ ഇപ്പോൾ നമ്മൾക്ക് റേറ്റ് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിക്ക് സവോള അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ റേറ്റ് കൂടിയ റേറ്റ് ഉണ്ട് അത്യാവശ്യം ഉണ്ട് പിന്നെ എന്തേലും ഞങ്ങൾക്ക് നിങ്ങൾക്ക് സ്ഥലം കൂടി ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡെലിവറി ചാർജജ് ഉണ്ടാവും ഒരു കിലോമീറ്റർ അനുസരിച്ച് ആയിരിക്കാം നമുക്ക് ഡെലിവറി ചാർജജ് ഉണ്ടാവുക

അത് നിങ്ങളുടെ അവിടേക്ക് താഴെ ഞങ്ങൾ കിലോമീറ്റർ കണക്കിനായിരിക്കും ചാർജജ് ഉണ്ടാവുക എന്തായാലും ഒരു കിലോമീറ്ററിന് ഞങ്ങൾ നൂറ്റമ്പത് ആണ് തരുന്നത് ആ അത് കുഴപ്പം ഇല്ല നമുക്ക് അതെല്ലാം റെഡി ആക്കാം പിന്നെ ഇതിൻ്റ ബാക്കിൽ ഞാൻ കുറേ പച്ചക്കറി കാണിച്ചു തരാം ഇവിടെയും കുറേ വാഴക്കൃഷി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുലകൾ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ കയറ്റി അയച്ചു തരാം

അല്ല പണിക്കാർ ഉണ്ട് ഇവർ ഇപ്പോൾ ഇന്നു ലീവ് ആണ് അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതൊക്കെ ആണ് ഇതാ ഇത് കഴിച്ച് നോക്ക് ഇത് ഫ്രഷ് തക്കാളി ആണ് കേട്ടോ

ആ എന്നാൽ ആ ലിസ്റ്റ് അയച്ച് തന്നാൽ മതി ഓക്കെ